ഒരു ഗവൺമെൻറ് അംഗീകൃതമായ ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻ്റ് അംഗീകാരമുള്ള ഒരു കാര്യമാണോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത് ഓ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് കരുതുക ആ സർട്ടിഫിക്കറ്റ് അവർ ആദ്യം നോക്കുന്നത് ഒരു അംഗീകാരമുള്ള സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റാണോ അല്ലെങ്കിൽ അംഗീകാരമുള്ള ഒരു കോഴ്സാണോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെ പോയി ഏത് കോഴ്സ് വേണമെങ്കിലും പഠിപ്പിക്കാ പഠിക്കാം അങ്ങനൊരു സ്ഥിതിയിലുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം മുക്കിലും മൂലയിലും എല്ലാ ഇടങ്ങളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സെക്ടറുകളും

പക്ഷെ എങ്കിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സ്

ഒരു സംഭവമാണ് അങ്ങനെ ഒരു അംഗീകാരമുള്ള കോഴ്സിലോ അല്ലെങ്കിൽ അംഗീകാരമുള്ള സ്ഥാപനത്തിലോ നമ്മൾ പഠിച്ചിറങ്ങിയാൽ

അങ്ങനെ ആ അങ്ങനെ ഒരു അംഗീകാരമുള്ള ഒരു വസ്തു നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഭക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് അതിന് ഗവൺമെൻറ് അംഗീകാരമുണ്ടോ എഫ് എസ് എസ് എ ഐയുടെ അംഗീകാരമുണ്ടോ ക്വാളിറ്റി ചെക്കുകളൊക്കെ കഴിഞ്ഞ ഫുഡ് പ്രൊഡക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻന്റർവ്യൂവിന് ഒരു സ്ഥാപനത്തിലേക്ക് പോയാലും അവർ നമ്മളെ പരിശോധിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും കാരണം നമ്മൾ നമ്മൾ പഠിച്ച കോഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ചെലവഴിച്ച ആ കാലഘട്ടം മൂല്യമുള്ള എന്തെങ്കിലും നമ്മൾ ആ സ്ഥപനത്തിൽ നിന്നോ മറ്റോ നേടിയിട്ടുണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത് അപ്പം നമ്മൾ മൂല്യമുള്ളവരാണോ നമ്മളിൽ ആ കോഴ്സിലൂടെ നമുക്ക് ലഭിച്ച അറിവ് മൂല്യമുള്ളതാണോ എന്ന് അറിയണമെങ്കിൽ ഈ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം ഈ അംഗീകാരമുള്ള സ്ഥാപനത്തിൻ്റെ കോഴ്സാണ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റാണ് ഏതൊരു പ്രൈവറ്റാകട്ടെ ഗവൺമെന്റാകട്ടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലിക്ക് പോയാൽ നമ്മളെ അവര് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ പഠിച്ച കോഴ്സ് നല്ലതാണോ നമ്മളുടെ ഐ ക്യൂ നല്ലതാണോ നമ്മുടെ ഐ ക്യൂ നല്ലതാകണമെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സ് നല്ലതായിരിക്കണം നമ്മൾ പഠിച്ച സ്ഥാപനം നല്ലതായിരിക്കണം അതിന് വേണ്ടി നമ്മൾ അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം നേടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ പോയാലും എന്ത് സാധനം വാങ്ങിയാലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നല്ലതാണോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പരിശോധിക്കും ഒരു തക്കാളി വാങ്ങിച്ചാലും ഒരു കിഴങ്ങ് വാങ്ങിച്ചാലും ഒരു ക്യാരറ്റ് വാങ്ങിച്ചാലും നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കും കേടുണ്ടോ വല്ല കുഴപ്പങ്ങൾ ഉണ്ടോ നമ്മൾ പരിശോധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഭാവി പരമായ ഒരു ജോലിക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു തലപ്പത്തൊക്കെ വന്നാൽ അവർ നമ്മളെ പരിശോധിക്കണമെങ്കിൽ നമ്മൾ കടന്ന് വന്ന വഴി അല്ലെങ്കിൽ നമ്മൾ നേടിയ അറിവ് ഒരു അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അംഗീകാരമുള്ള കോഴ്സാണോ എന്ന് അവർ പരിശോധിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരാൾ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടുക എന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിടെ പോയി എന്ത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം ഏത് സ്ഥപനത്തിൽ വേണമെങ്കിലും പഠിക്കാം പക്ഷെ അതിന് മൂല്യമുണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ അംഗീകാരമുള്ള ഒരു സ്ഥപനത്തിൽ തന്നെ പഠിക്കേണ്ടതാണ്